ഞാൻ കാണാറുണ്ട് യൂട്യുബ് ചാനൽ വീണാസ് കറി വേള്ഡ് ഷാമ്മീസ് കിച്ചൺ പിന്നെന്താ ഒരുപാട് പ്ലാന്സ് ഞാൻ ഒരുപാട് യൂട്യുബ് ചാനൽ കാണാറുണ്ട് പിന്നെ പിന്നെ ഞാനെന്താ ഞാന് തമിഴ് പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരാളാണ് പാടാനറിയില്ലെങ്കിലും അപ്പോൾ ഞാന് സണ് മ്യൂസിക്ക് ഇസൈ അരുവി ഒരുപാട് കലൈഞ്ജര് ടിവി അതൊക്കെ കാണാറുണ്ട് ഹിന്ദി സോങ്ങ്സ് ഞാന് കാണാറുണ്ട് തെലുങ്ക് സോങ്ങ്സ് കാണാറുണ്ട് പരിപാടികള് പിന്നെ യൂട്യുബ് ചാനലായാലും അതെ ഒരുപാട് ഇപ്പോൾ ചൈനീസ് വോയ്റ്റ് അങ്ങനത്തെ കുറേ യൂട്യുബ് ചാനല്സിലുള്ള ഓരോ എന്താ പറയുക ഡെക്കറേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും അതിലത്തെ ഫുഡിന്റെ ഓരോ കാര്യങ്ങളും ഞാന് കാണാറുണ്ട്